ഇന്നത്തെക്കാലത്ത് പുതുതായിട്ട് കളിക്കുന്നത് മെയിൻലി ഓൺലൈൻ ഗൈയിംസാണ് ഇങ്ങനത്തെ ഓൺലൈൻ ഗെയിംസിനുള്ള ഉദാഹരണമാണ് പബ്ജി ഫ്രീ ഫയർ കോൾ ഓഫ് ഡ്യൂട്ടി ക്ലാഷ് ഓഫ് ക്ലാൻസ് അങ്ങനെയുള്ളത് ഇത് കുട്ടികളെ കുറെക്കൂടി ഒറ്റപ്പെടുത്തും പക്ഷെ നമുക്കതിന്റുള്ളില് ആ അത് അത് കളിക്കുന്ന കുറേ കുട്ടികളെ നമുക്ക് അങ്ങനെ പരിചയപ്പെടാനുള്ള സാധ്യത ഉണ്ട്